കെ ആർ കോളനിയിൽ നിന്നാണേ ഈ വരുന്ന ദീപാവലിയോട് അനുബന്ധിച്ച് നമ്മള് അവിടെ കോളനിയില് വലിയ രീതിയിലുള്ള ഒര് ആഘോഷം നടത്താൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ദിപാവലിയാകുമ്പോൾ മധുരമാണല്ലോ ഏറ്റവും അപ്പം ഇവിടെ കോളനിയിലുള്ള എല്ലാ നിവാസികളുടെയും അഭിപ്രായത്തില് നിങ്ങള് നൽകുന്ന മധുരങ്ങള് വള വളരെ രുചിയുള്ളതാന്ന് അറിയാൻ സാധിച്ചു അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉത്സവത്തോട് അനുബന്ധിച്ച് ഒരു പത്ത് വ്യത്യസ്ത തരത്തിലുള്ള മധുര പലഹാരങ്ങള് വേണമെന്നാണ് ഇവിടെയുള്ളവരെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളതും അപ്പോൾ ഏകദേശം ഒരു മുപ്പത് കുടുംബാംഗങ്ങളുണ്ട് അപ്പം മുപ്പത് കുടുംബാംഗങ്ങൾക്ക് കഴിക്കാനാവശ്യമായ മധുര പലഹാരങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പം ദീപാവലി പന്ത്രണ്ടിന് ദീപാവലിയോട് അനുബന്ധിച്ച് നമ്മള് പതിനൊന്നിനാന്ന് പരിപാടികള് നടത്തുന്നത് അപ്പോൾ പതിനൊന്നിന് വൈകുന്നേരത്ത് നമുക്ക് ആവശ്യം വരിക അപ്പം പതിനൊന്ന് വൈകുന്നേരത്തേക്ക് ഈ പത്ത് വ്യത്യസ്ത തരത്തിലുള്ള അപ്പം അതിൻ്റെ കിലോ കണക്കുകളൊക്കെ നിങ്ങള് അതിനനുസരിച്ചിട്ട് നമ്മള് പറയാം അത് നിങ്ങടെ ടൈമില് ലഭ്യമാണോന്ന് അറിഞ്ഞാലല്ലേ നമുക്കത് പറയാൻ പറ്റുകയുള്ളു അപ്പം അത് ലഭ്യമാണോ എന്ന് അറിയാൻ വേണ്ടീട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് അപ്പം അത് ലഭ്യമാണെങ്കില് നിങ്ങളെന്തെയ്യാ ഇത് പറയുക നമ്മള് ഇന്ന് തന്നെ അതിനുള്ള ഒരു ഉറപ്പ് നിങ്ങള് തരണം കാരണം നമുക്ക് അഥവാ എത്തിയില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് അന്വേഷിക്കണ്ടതാണല്ലോ അപ്പം എന്തായാലും നമുക്കൊരു പത്ത് വ്യത്യസ്ത തരങ്ങളും വേണം അതാ നമ്മളേറ്റവും കൂടുതലായിട്ട് പറയുന്നത് നമ്മള് അത്രയും കാര്യമായിട്ട് കൊണ്ടാടാൻ തീരുമാനിച്ചതാണ് അപ്പം നിങ്ങള് അതിനുള്ളൊരു മറുപടി എന്തായാലും നമുക്ക് തരിക